കല എന്നുള്ളത് നമ്മൾക്ക് ഒരു വിനോദവും അതുപോലെ തന്നെ കൗതുകവും അതുപോലെ നമുക്ക് കൂടുതല് അറിവും തരുന്ന ഒരു കലയെ കലയ്ക്ക് കലയ്ക്ക് സാധിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോരുത്തര്ക്കും ഓരോ ആഗ്രഹങ്ങളും കാര്യങ്ങളും നമ്മളെ ഓരോന്നും മെച്ചപ്പെടുത്തുന്ന നമ്മുടെ ഉള്ളിലെ ഓരോ കലാകാരനെയാണ് അതായത് ചിലവര്ക്ക് വരയ്ക്കാനുള്ള കഴിവുകൾ ഉണ്ടാകും ചിലവര്ക്ക് പാട്ട് പാടാൻ ഉള്ളത് ചിലവരെ ചിലവര്ക്ക് ഒരു ജീവിതത്തിൽ അത് പുറത്ത് എത്താനായിട്ട് ചില കലാരൂപങ്ങള്ക്ക് നമ്മുടെ സന്തോഷങ്ങൾ നമ്മുടെ നമ്മടെ ഉള്ളിലുള്ള എല്ലാം നമ്മള് ചിലപ്പം പുറത്ത് പ്രകടമാക്കുന്ന ചിലർ ചില കലാരൂപങ്ങൾ ചിലര്ക്ക് പാടാൻ ഉള്ളത് ചിലപ്പം സങ്കടം വരുമ്പോൾ ചിലവർ പാടും ചിലപ്പം ചിലവര്ക്ക് ഒറ്റപ്പെട്ടു പോവുന്ന സാഹചര്യങ്ങളില് ചിലവർ പടം വരയ്ക്കും അങ്ങനെ അങ്ങനെ അത് സ്ഥിരമായി കഴിയുമ്പോഴാണ് നമ്മൾക്ക് ഒരു കലാരൂപമായിട്ട് മാറുന്നതും അതുപോലെ തന്നെ നമ്മൾ ഒരു കലാകാരനുമായിട്ട് നമ്മൾ ആ അറിയപ്പെടുന്നതും നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ് നമ്മളെ ശരിക്കും ഒരു കലാകാരന്മാരാക്കുന്നു എന്നു പറയുന്നതിൽ ഒരിക്കലും ഒരു തെറ്റില്ല